ഗ്രാമ പ്രദേശങ്ങളിൽ പൊതുവെ എന്ന് പറയുമ്പോൾ നമ്മൾ അധികവും കൃഷിക്കാരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരും ആയിരിക്കും ഇപ്പോൾ ഒന്നികിൽ കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ അങ്ങനത്തെ സംരംഭകത്ത്വം നടക്കണ ആൾക്കാരായിരിക്കും കൃഷിയാണ് മെയിൻ എല്ലാവർക്കും മിക്കവാറും എല്ലാ വീട്ടിലും കൃഷിയും കാര്യങ്ങളും ഇപ്പോൾ പാടത്തുനിന്ന് നെൽ കൃഷിയുണ്ടാവും അതുപോലെ നെല്ലിലാത്ത സമയത്ത് പച്ചക്കറി കൃഷിയുണ്ടാവും പിന്നെ തെങ്ങ് കവുങ്ങ് വാഴ അതുപോലെ എല്ലാ എല്ലാവരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഇപ്പം വീട്ടിൽ എല്ലാവരും ഇപ്പം അമ്മയാണെങ്കിൽ അവർക്ക് വീട്ടിൽ മിക്കവാറും തൊഴുത്ത് കാര്യങ്ങൾ ഉണ്ടാവും അവിടെ പശുക്കൾ ഉണ്ടാവും പിന്നെ താറാവ് കോഴികൾ അങ്ങനെ ഇപ്പോൾ ചില വീട്ടിൽ കോഴിക്കൃഷി ആയിരിക്കും അതായത് കോഴികളെ വളർത്തി അവർ മുട്ട വിറ്റ് അല്ലെങ്കിൽ കോഴിയും ഇറച്ചിക്കോഴി വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ആയിരിക്കും അതുപോലെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പച്ചക്കറി നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ചന്തകൾ ഉണ്ടാവും മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ അത് നമ്മൾ ഗ്രാമ പ്രദേശങ്ങൾ നോക്കി കഴിഞ്ഞാൽ ലേല പീഡികകൾ ഉണ്ടാവും അപ്പം അവിടെനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒരേപോലെ ലാഭകരമായിട്ടുള്ള സ്ഥലമായിരിക്കും ലേലപ്പീഡിക എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങണേക്കാട്ടിലും നമ്മുടെ ഗ്രാമങ്ങളിലെ കൃഷി ചെയ്ത സാധനങ്ങൾ നമ്മുടെ ഗ്രാമത്തിൽനിന്ന് തന്നെ മേടിക്കാൻ പറ്റും അപ്പോൾ അതായത് നമുക്ക് അതിൽ വലിയ മായമോ കലർപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല സാധനങ്ങൾ മേടിക്കാനുള്ള അവസരങ്ങൾ കിട്ടും പിന്നെ കന്നുകാലി വിതരണശാല അതുപോലെ ഇപ്പോൾ നമ്മൾ കുറേ ഈ ചന്ത ഇപ്പോൾ നമ്മളേ എൻ്റെ ഭാഗത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരേ ഒക്കെ ഇപ്പോൾ കന്നുകാലിച്ചന്ത തന്നെയുണ്ട് അപ്പം അവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒരേപോലെ നമുക്ക് സാധിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ കന്നുകാലിച്ചന്തകൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ കുടുംബശ്രീ ഇതിൽ അതുപോലെ മറ്റേ അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ എന്താ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറിത്തോട്ടങ്ങൾ മെയിനായിട്ട് കുറേ പച്ചക്കറിത്തോട്ടങ്ങളുണ്ട് അപ്പം അവിടെ പോയിട്ട് നമുക്ക് നേരിട്ട് മേടിക്കാം അതുപോലെ ഈ എന്താ പറയുക കോഴിമുട്ട അങ്ങനത്തെ സാധങ്ങളൊക്കെ മേടിക്കാം ഈ നമുക്ക് പിന്നെ ചില സമയത്ത് നമുക്ക് മിൽമയിൽ ആ മിൽമ നമ്മൾ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര പാൽ കൊടുക്കണം ഒരു ദിവസം നമുക്ക് എത്ര പാൽ വേണമെങ്കിലും അവിടെ കൊടുക്കാനും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പറ്റും അപ്പം അവിടെ പക്ഷെ നമുക്ക് അവിടെ നമ്മൾ ആദ്യം പേര് രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ ചെയ്ത് നമുക്ക് എത്ര പാൽ വേണമെങ്കിലും കൊടുക്കാം അതുപോലെ അവിടെനിന്ന് മേടിക്കുകയും ചെയ്യാം